കോളേജ് ഡിഗ്രി ഉള്ളവരെ ഒരുപാട് പേരെ അറിയാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കോളേജിൽ പഠിക്കുന്ന അവരൊക്കെ സ്വയം മുന്നേറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും ഉണ്ടെന്നും പലരും ഇല്ലയെന്നും പറയാം

പലരും അവരുടേതായ താൽപര്യപ്രകാരം ഡിഗ്രി എടുത്തവരും മറ്റുപലർ വീട്ടുകാരുടെ നിർബന്ധ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പിന്നാലെ പോയിട്ടും അങ്ങനെയൊക്കെ ഡിഗ്രി എടുത്തവരും ഉണ്ട് അതില് ചിലരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുന്നേറി അവരുടേതായ വിജയത്തിന്റെ പാതയിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും എല്ലാവരും ആ വിധത്തിൽ എത്തിയിട്ടില്ല പലരും പല വിധത്തിൽ ആണല്ലോ ഓരോന്ന് കാണുന്നത് ഡിഗ്രി ഇന്നത്തെക്കാലത്ത് ഡിഗ്രി പഠിച്ച് മൂന്ന് വർഷം കളയാൻ പലരും ആഗ്രഹിക്കുന്നില്ല ഒരു ഏതെങ്കിലും കോഴ്സ് എടുത്ത് ഒരു ജോബിന് ജോബിനായിട്ടേ പലരും നോക്കുന്നുള്ളൂ അതുകൊണ്ടുതന്നെ പലരും മുന്നേറിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി